ആ അതേ അല്ലോ ആര്പ്പ ഇത് മിണ്ടുന്നത് ആ രാധിക പറഞ്ഞോളൂ രാധിക എന്താണ് പ്രശ്നം ആണല്ലേ പറഞ്ഞോളൂ കേൾക്കാം ഡോക്ടറ് പറഞ്ഞോ ആ അതേത് ഡോക്ടറാണ് പറഞ്ഞോളൂപ്പാ എല്ലാം പറഞ്ഞോളൂ ഞങ്ങൾക്ക് എല്ലാം ശരി ആക്കാം ഞങ്ങൾക്ക് എല്ലം ശരി ആക്കാം

ആ ആ ആ ആ ആ ആ അതെ അതിന് ഞങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ സ്വാഭാവികമാണ് സ്വാഭാവികം പറഞ്ഞിട്ട് ഞങ്ങളുടെ ശരീരം ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് മുപ്പത് വയസ്സ് ഞങ്ങൾക്ക് ഈ പിള്ളേർ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്രത്തോളം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങളെ ശരീരത്തിൽ ഞങ്ങൾ ഫുഡ്ഡ് കഴിക്കുന്നതിൽ എല്ലാം ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് ഞങ്ങൾ എണ്ണ കൂടുതൽ കഴിക്കാൻ പാടില്ല നമ്മൾ എപ്പോഴും ആ ഇഷ്ടപ്പെടുന്നത് അല്ലെ രാധികേ എന്തുന്ന് ഈ എണ്ണ പലഹാരമെല്ലാം നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ലേ അപ്പോൾ അതിനെ ഞങ്ങൾ കൂടുതലായിട്ടു ഒഴിവാക്കാം ഫുഡ്ഡ് നല്ല ഉറക്കം നല്ല റസ്റ്റ് വേണം തടിക്ക് ഇത് അല്ല ഈ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാം പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നണ്ട് മാനസികമായിട്ട് ഞങ്ങൾ കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയം അല്ലേപ്പാ ആ അപ്പോൾ അതിൻറ്റേതായ ഹോർമോണ് വ്യത്യാസങ്ങളെല്ലാം ഞങ്ങളെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഞങ്ങളെ ശരീരത്തിൻ്റെ വെള്ളി ഇങ്ങനെ സിസ്റ്റെന്നുള്ള രീതിയിലും ഗർഭാശയത്തിൽ അതും ഇതും എല്ലാം വരുന്നണ്ട് ഞങ്ങൾക്ക് വേണ്ട മാനസികമായിട്ട് ഉള്ള നല്ല ഒരു മന ശക്തി വേണ്ട നല്ല രീതിക്ക് സന്തോഷം ഉണ്ടാവണം ഞങ്ങളെ ജീവിതത്തിൽ പിന്നെ വേണ്ടത് ഞങ്ങളുടെ ആരോഗ്യത്തിനുള്ള ഭക്ഷണ ശീലങ്ങൾ എല്ലാം നല്ല രീതിയിൽ കൺട്രോള് ചെയ്യാൻ ആവശ്യത്തിന് ഉള്ളത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ രാവിലെ ഇങ്ങനെ കഴിക്കാം കൂടുതൽ ഭക്ഷണം രാവിലെയും ഉച്ചക്ക് കുറച്ച് കുറവും രാത്രി പിന്നെ അതിൻ്റെ ഏറ്റവും കുറവ് ഭാഗം കഴിക്കുന്ന ആ രീതിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാം അങ്ങനെയാണ് ഉം പിന്നെ പി സി ഒ ഡി ഇത് ഇപ്പോൾ എല്ലാവർക്കും ഇള്ളതാണ് ഒന്നും ടെൻഷനടിക്കാനില്ല ആദ്യം ഒന്ന് പറയട്ടെ ടെൻഷനടിക്കാൻ ഇത് വലിയ രോഗം എന്നുള്ള രീതിയിലൊന്നും അല്ല പി സി ഒ ഡി പറയുന്നുള്ളത് ആവൂല ടെൻഷൻ അടിക്കണ്ട പറഞ്ഞോളൂ ഇനി എന്തുന്നാ പ്രശ്നമുള്ളത് ആ

ആ അത് തന്നെ ഓ ഓ ഓ അതേല്ലേ ഇത് പി സി ഒ ഡിക്ക് ഇപ്പോൾ പ്രായ വ്യതിയാനം എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ ഈ മുപ്പത് വയസ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും ചെറിയ വയസ്സിൽ തന്നെ വരുന്നുണ്ട് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രശ്നനത്തിൽ വരുമ്പോൾ സ്കാനിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അല്ലേ അത് നോക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് ആ സ്കാനിംഗിലൂടെ ആണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പി സി ഒ ഡി പ്രശ്നമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വേറെ ഒരു കാര്യം ഏതെങ്കും ഒരു മരുന്നില്ല ഉറച്ച് നിൽക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ മാറി മാറിയിട്ട് മറ്റ് മറ്റ് മരുന്ന് എടുക്കാണ്ട് ഈ ഒരു മരുന്നിൽ ഉറച്ച് നിൽക്കണ്ടതായിട്ട് വരും പിന്നെ ഞങ്ങളെ മനസ്സിൻ്റെ മാനസിക സംഘർഷം മനസ്സിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ ഞങ്ങൾക്കിങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഞങ്ങൾ ഓരോ ഓരോ ഇത് അയക്കുമ്പോൾ

അതിലൂടെ ഞങ്ങൾക്ക് ശരി ആക്കാൻ പറ്റു ഏതെങ്കിലും ഒരു മരുന്നിൽ ഞങ്ങൾ ഉറച്ച് നിൽക്കാൻ നോക്കാം കൂടുതലായിട്ടും ഉം ഈ ഞങ്ങള് ഇങ്ങനെ മാറി മാറി ആയുർവേദം ഹോമിയോ എടുക്കുന്നതിനേക്കളൂം നേതാക്കളും ഏതെങ്കിലും ഒരു മരുന്നിൽ ഞങ്ങൾ തുടർച്ചയായിട്ട് ആറ് മാസം എടുക്കാം എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം ടെൻഷൻ ആദ്യം ഒഴിവാക്കാം അതിൽ എല്ലാം ശരി ആവും ആ അതെ അതെ അതെ ഉണ്ടോ ആ ആ അതെ അതെ അതെ

ആ ആ അതെ അതെ അതെ ശരി ആണ് ശരി ആണ് ഞങ്ങളെ ഇത് ആ മരുന്ന് ഇപ്പോൾ എപ്പോൾ വരാൻ പറ്റും ഞാൻ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി തരാം കുറച്ച് എഴുതി തരാം അത് ഒരു ഒരു മൂന്ന് ആഴ്ച ഒക്കെ ആയിട്ട് ഞാൻ എഴുതി തരാം അത് ഒന്നെടുത്ത് നോക്കാം പിന്നെ അതിലെന്ത് മാറ്റം വരുന്നത് നോക്കാം ഇനി ഇപ്പോൾ നാളെയോ മറ്റ നാളത്തേക്ക് ഫുൾ ടോക്കണ് ഫുള്ളാണ്